ഇപ്പോൾ ഒരു ചിത്രം വരച്ചു തുടങ്ങുന്നവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിൽ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും പ്രാക്ടീസ് കാര്യങ്ങളൊക്കെ ചെയ്തു കൊണ്ടിരിക്കണം ഇല്ലെങ്കിൽ നമ്മൾ ഇപ്പം നമ്മൾ ഇന്ന് വരച്ചിട്ട് ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ട് വരക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണെങ്കിൽ നമുക്ക് ഇത് എന്തു ചെയ്യും വരക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമ്മളുടെ കൈ വഴങ്ങാണ്ട് വരിക കൈ വിറക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നതു കൊണ്ട് നമ്മൾ ഡെയ്ലി പ്രാക്ടീസ് ചെയ്യണം നമ്മൾ ഇപ്പോൾ ഒരു മുഖം വരക്കുന്നുണ്ടെങ്കിൽ ഒരു ആ മുഖം വരക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അത് എപ്പോഴും നമ്മളുടെ ഭാവനയിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കണം എന്നിട്ട് വേണം അതിന് ബോഡറും കാര്യങ്ങളൊക്കെ ലൈനൊക്കെ വരച്ചതിനു ശേഷം കണ്ണെവിടെയാണ് മുഖം അതായത് മൂക്ക് എവിടെയാണ് വായ എവിടെയാണ് എന്നൊക്കെ കറക്റ്റ് നമ്മൾ ആലോചിച്ച് ആലോചിച്ച് ആലോചിച്ചതിന് ശേഷം മാത്രം നമ്മൾ അതെല്ലാം വരക്കണം അപ്പം നമ്മളിപ്പോൾ ആദ്യംതന്നെ നമ്മൾ മുഖം അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരക്കാണ്ട് ചെറിയ രീതിയിലുള്ള ചിത്രങ്ങൾ കാര്യങ്ങളൊക്കെ ആദ്യം നമ്മൾ വരച്ചു നോക്കുക അത് കഴിഞ്ഞതിന് ശേഷം മാത്രം വലിയ വലിയ രീതിയിലുള്ളതൊക്കെ ഉള്ളതൊക്കെ പോകുന്നതായിരിക്കും കുറച്ചു കൂടി ബെറ്റർ അപ്പോൾ നല്ല രീതിയിലുളള പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് വരക്കാൻ വേണ്ടി സാധിക്കും